ഹലോ ആ ഞാ ഹലോ സുനിത മാമല്ലേ ടൂറിസ്റ്റ് ഗൈഡ് ഞാൻ ആ ഞാനാണെങ്കിലെ ഞാനെ ഇപ്പോള് ഇന്ത്യയിലേക്ക് വന്ന എൻ്റെ രാജ്യം ശ്രീലങ്കയാണ് അപ്പോള് ഞാൻ അവിടുന്നേ ഈ നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഞാന് വന്നതാണെ ഇപ്പോള് എനിക്കപ്പോള് ഇവിടത്തെ ക്ഷേത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളെനിക്ക് തെക്കൻ ജില്ല ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ അപ്പഴത്തേ എൻ്റെ ആ അങ്ങനെ ഈ ക്ഷേത്രങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കൂടുതല് ആ ഒത്തിരിയാഴത്തിലെനിക്ക് അറിയാൻ താല്പര്യമുണ്ടേ അപ്പോള് ഇവിടുത്തെ ഏറ്റവും വലിയ റിചെസ്റ്റായിട്ടുള്ള ഏറ്റവും കൂടൽ ആൾക്കാര് സന്ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളെ പറ്റി ഒന്ന് വിവരം നൽകാമോ എനിക്ക്

അതെവിടെയാ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആ തിരുവനന്തപുരം തന്നെ ആ അ ആ ഇത് ആ

ആ ആ ഞാൻ ഞങ്ങളുടെ പത്രത്തിലൊക്കെ ഈ വാർത്ത ഉണ്ടായിരുന്നേട്ടോ മ്മ് മ്മ് അത് ആ ആ ആ അ ആ മഹാവിഷ്ണു ആ ആ ആ ആ ആ ഓക്കെ ആ ഓക്കെ ആ ആ ശരി ആ ഞാന് ഞാന് ഞാന് ആ ഞാന് ബുദ്ധമത വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ഹിന്ദുമതത്തിലെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോള് ഞാനീ ക്ഷേത്രത്തെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ രാജ ഭരണകാലത്ത് നിർമിച്ച ക്ഷേത്രമാണ് അല്ലേ മ്മ് നവീകരിച്ചത് മ്മ് മ്മ് ആ അവിടത്തെ പ്രതിഷ്ഠ മാ മാഡം പറഞ്ഞല്ലോ അവിടത്തെ പ്രതിഷ്ഠ വിഷ്ണുവാണെന്ന് പറഞ്ഞല്ലോ

അനന്തശയനം ആ ആ ആ അനന്ത അനന്തശയനം

ഓ ഒരു അവതാരമല്ല അപ ആ ആ ആ കിടക്കുന്നെ ആ ആ ആ ആ ആ ആ ആ ഓ ആ അവിടെ ഈ ക്ഷേത്രം സന്ദർശിക്ക ഉണ്ടായിരുന്നു അല്ലേ അല്ല ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ വസ്ത്രധാരണത്തിലോ അങ്ങനെന്തെങ്കിലുമൊക്കെ എന്തേലും ഇതുണ്ടോ

മ്മ് മ്മ് മ്മ് അപ്പോള് ഞാൻ ആ അപ്പോള് ഞാനെ ഇങ്ങനെ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ട് അഹിന്ദുകൾക്ക് ആ ക്ഷേത്രത്തില് പ്രവേശനം ഇല്ലാ എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അത് വാസ്തവമാണോ മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് ആ ആ ആ ഓക്കെ ആ ഓക്കെ മാം ആ ഇത്രയും വിവരം നൽകിയതിന് സന്തോഷം കേട്ടോ

ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ